ഞങ്ങള് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പശുവിനെ വളർത്തുന്നതുകൊണ്ട് ആ പശവിൻ്റെ ചാണകം ഞങ്ങള് സാധാരണ വേനല്ക്കാലം വരുമ്പോഴത്തേക്കാണ് വേനൽക്കാലത്ത് ഞങ്ങള്ക്ക് വീടിനോട് ചേർന്നുതന്നെ അതായത് കൂടിനോട് ചേർന്ന് വലിയകലമില്ലാതെ ഒരു കളമുണ്ടാക്കിയിട്ടുണ്ട് ആ കളത്തിനകത്തോട്ട് ഈ ഒരു ബെങ്കാളിപ്പയ്യനുണ്ട് നമുക്ക് അവനെക്കൊണ്ട് വാരി അതിനകത്ത് കുത്തി നിരത്തി അവിടിടും നിരത്തിയിട്ടുകഴിഞ്ഞാൽ അതുണങ്ങി വൈകിട്ട് തടുത്ത് കൂട്ടി ഞങ്ങള് അതു വാരി വേറൊരു സ്ഥലത്ത് കൂട്ടും അതെന്നുവച്ചാൽ വില്ക്കാനായിട്ട് പിന്നെ അത് മഴക്കാലം വരുമ്പോഴത്തേക്ക് ഈ പിന്നെ ചാണകമങ്ങനുണങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് അത് നമ്മള് കഴിവതും എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പച്ചച്ചാണകവും ആവശ്യക്കാരുണ്ട് അവർക്ക് കഴിവതും നമ്മള് കൊടുത്താല് അതങ്ങ് ഒഴിവാക്കും കാരണം കാരണം ചാണകമങ്ങനെ കിടക്കുന്തോറും ഒരുപാട് സമയ നാളുകൾ കിടക്കുന്തോറും ചാണകത്തിന്റെയും ഗുണം കൂണും ആ പശുക്കൾക്ക് രോഗമുണ്ടാവും അപ്പോഴതുകൊണ്ട് ആ ചാണകം നമ്മള് നീക്കം ചെയ്യണം അത് നമ്മള് സാധാരണ ചെയ്യുന്നതെങ്ങനാണെന്ന് വച്ചുകഴിഞ്ഞാല് വാഴകൃഷിക്കാര് വരും കപ്പ കൃഷിക്കാര് വരും അങ്ങനെ അങ്ങനെയുള്ളവർക്ക് അത് കൂടുതലും കൊടുത്ത് കൊടുത്ത് അത് നമ്മള് നമ്മളിതാക്കുകയാണ് നമുക്ക് സാധാരണ രീതിയിലുള്ളത് എനിക്ക് അഞ്ചു പശുക്കളാണ് ഉള്ളത് ഈ അഞ്ച് പശുക്കളില് ചാണകവും സാമാന്യം ഒരു നല്ലയൊരു ശതമാനം കാണും അപ്പോള് അത് നമ്മള് ഇപ്പോള് ഈ ചാണകത്തിനും വളത്തിന് വിലകൂടിയതുകൊണ്ട് ജൈവവളം ചേർത്താണ് സാധാരണ എല്ലാവരും കൃഷി ചെയ്യുന്നത് അപ്പോള് ആ ജൈവവളം ചേർത്ത് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാല് ജൈവവളത്തിനിവിടെ കൂടുതലുപയോഗിക്കുന്നത് ചാണകമാണ് ചാണകപ്പൊടിയാണ് പിന്നെ ഞങ്ങള് ചാണകപ്പൊടി കൂടാതെ ഈ ജൈവവളത്തിന് ആട്ടുങ്കാട്ടം ആടിനെ വളർത്തുമ്പോഴത്തേയ്ക്ക് അതിൻ്റെ കാഷ്ടം അതുകൂടാതെ ഞങ്ങള് പുറത്തൂന്നാട്ടുങ്കാട്ടം മേടിക്കും പുറത്തൂന്നാട്ടുങ്കാട്ടം മേടിച്ചുകഴിഞ്ഞാൽ ആ തെങ്ങിനൊക്കെയൊന്ന് എല്ല് ഇച്ചിരി എല്ലുപൊടി യൂറിയ പൊട്ടാഷ് ഇതുങ്കൂടെ കൂട്ടിയിളക്കി ഈ ഇതുകൂടെ കൂട്ടിയിളക്കി അതിനിടും അപ്പോള് നമ്മുടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ ഈ ജൈവവളം ഈ പശുവിൻ്റെ ചാണകവും അങ്ങനെത്തൊള്ള കാര്യങ്ങളൊക്കെ നമ്മടെ വിളവിനുപോവും അതായത് വാഴ കൊക്കൊ ആ കൊക്കോയ്ക്കൊക്കെ പ്രധാനാ കൊക്കോയ്ക്ക് മുഴുവൻ ഈ പശു ചാണകം വരുന്ന സമയത്ത് മുഴുവൻ കൊക്കോയ്ക്ക് വെക്കുകയാണ് കൊക്കോയ്ക്ക് മറ്റേ പറമ്പിൽ ഇഷ്ടമ്പോലെ പുല്ലുണ്ടല്ലൊ ആ പുല്ലെല്ലാങ്കൂടെ പറിച്ചിട്ട് ആ പുല്ലിൻ്റെ പുറത്തോട്ട് ചാണകമിട്ട് ആ അത് ഒരുചെറിയ തടംപിടിക്കും തടം വെട്ടിപ്പിടിക്കും വെട്ടിപ്പിടിച്ചിട്ട് അത് ച് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ബാക്കിവരുന്ന വേയ്സ്റ്റ് ചപ്പുകളെല്ലാം ഈ തടത്തിനകത്ത് മുകളിലിട്ടങ്ങ് മൂടും അങ്ങനെ ഇടുമ്പോഴത്തേക്ക് കൊക്കൊ ഉണ്ടാവുകയും ഒക്കെച്ചെയ്യും അതുപോലെതന്നെ വാഴ ഇതെല്ലാം പിന്നെ നമ്മള് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേറെ കുഴപ്പമുള്ളതെന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് കീടങ്ങളുടെ ശല്ല്യമുണ്ടാവും ഏറ്റവുമധികമായി നമ്മൾ തെങ്ങിനിപ്പോള് നമ്മൾ സാധാരണയായി ഞങ്ങള് ചാണകമുപയോഗിക്കത്തില്ല ചെല്ലിയെന്ന് പറയുന്ന ഒരു മാരക മാരകശത്രുവുണ്ട് അത്ര ഭയങ്കരമായ ശല്യമാണ് അതായത് ഒരു മാസത്തില് ഒന്ന് മരുന്നൊഴിക്കുകയോ ഒന്ന് വെട്ടിനിർത്തുവോക്കെ ചെയ്യാതെ ഒരു തെങ്ങും ഇപ്പോള് ഉണ്ടാകാത്തില്ല ഈ ചെല്ലിയുടെ ശല്യം ഭയങ്കരമാണ് അത് നമ്മള് അറിയത്തില്ല സാധാരണ ഈ ചെമ്പ ചെല്ലി രണ്ടുമൂന്ന് സൈസുണ്ട് ചെമ്പഞ്ചെല്ലി എന്ന് പറയുന്നതുമുണ്ട് അല്ലാതെ വേറൊരു സൈസുമുണ്ട് ചെമ്പഞ്ചെല്ലീന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ചോട്ടില് ചുവട്ടിക്കൂടെക്കേറി ഐയ്ക്കും മരത്തിലെ തെങ്ങിനൊന്നുമൊരു കുഴപ്പവുമുണ്ടാകത്തില്ല പക്ഷെ നമ്മള് ഒരു ഒരു മാസം കഴിയുമ്പത്തെക്കും തെങ്ങ് ചോടെ പറിഞ്ഞിരിക്കും പരത്തിക്കളയും പരന്നുപോകും അങ്ങാമോൽച്ച് മറിഞ്ഞുപോവും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങള് വരുമ്പൾത്തേയ്ക്ക് ഈ ജൈവവളത്തിൻ്റെ ഉപയോഗം ഞങ്ങള് ചാണകം കൂടുതലും ഞങ്ങള് ചാണകത്തിൽ നിന്ന കൂടുതല് ഈ ചെല്ലിയുണ്ടാകുന്നെ അതൊരു സൈസ്സ് വണ്ട് പോലെ സാനവ പിന്നെ അതിനുപകരം ഞങ്ങളുപയോഗിക്കുന്ന ആട്ടുങ്കാട്ടം ആട്ടുങ്കാട്ടം ഉണങ്ങി സൂക്ഷിച്ച് വയ്ക്കും ഉണങ്ങി വയ്ക്കുന്നവരുണ്ട് അവരോട് ആട്ടുങ്കാട്ടം വാങ്ങും അത് വാങ്ങിയിട്ട് തെങ്ങിന് കൂടുതലിടുന്നത് സാധാരണ ഞാന് ആണ്ടിൽ രണ്ട് വളമിടും ആണ്ടില് രണ്ട് വളവിടുന്ന കൂട്ടത്തില് നനയ്ക്കേഞ്ചെയ്യും വേനല് നനക്ക് നനയ്ക്കും ആണ്ടിൽ രണ്ട് വളമിടുന്നത് ആട്ടുങ്കാട്ടവും എല്ലുപൊടി യൂറിയ പൊട്ടാഷ് ഇതിൻ്റെ പ്രെസൻറ്റേജ് വച്ച് ചേർത്ത് അതാണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോള് നമ്മുടെ ഈ വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം എന്ന ഞമ്മള് ചാണകമൊക്കെ സാധാരണ ജൈവവളമായിട്ടുപയോഗിച്ച് വാഴയ്ക്കും ഇതിനൊക്കെ ഇട്ടോണ്ടായിരുന്നെ പക്ഷെ ഈ ചെല്ലി ശല്യമൊക്കെ കൂടിയതുകൊണ്ട് ചാണകത്തിലാണ് ഏറ്റവും കൂടുതല് ചെല്ലിയുണ്ടാകുന്നത് ചെല്ലി അപ്പോള് ഈ കൂട്ടില് നമ്മള് സാധാരണ പശുക്കളുടെ കൂട്ടിലൊക്കെ ചാണകം നമ്മള് കിടക്കുകയാണെങ്കിൽ ആ ചാണത്തിനകത്തുനിന്നാണു ചെല്ലിയൊണ്ടായിവരുന്നെ ഒരു പുഴു ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആ പുഴുവിന് ചിറകുവിരിച്ച് അത് വളര്ന്ന് നമ്മുടെ തെങ്ങേലക്കെ കൊത്തും അതിന് ഞങ്ങള് കഴിയുന്നേനനുസരിച്ച് ചാണകമങ്ങനിട്ടേക്കത്തില്ല ചാണകം കഴിവതും നമ്മള് വേനക്കാലം വരുമ്പോഴത്തേക്കാ കുഴപ്പമധികമില്ല ചാണകം വാരി കളത്തില് നിരത്തി പൊടിച്ച് പാർന്നോളും ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിനാണത് പോന്നൊണ്ട് അപ്പോള് മഴക്കാലം വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ മഴ ബുദ്ധിമുട്ടുണ്ട് മഴക്കാലം വരുമ്പോഴത്തേക്ക് ഞങ്ങള് എന്നാ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് തെങ്ങിനും മറ്റുള്ളതിനുമൊക്കെ കുറേ വാരിയിടും ചെല്ലിയൊക്കെ ഉണ്ടാകുമെങ്കിലും കാരണം ഈ ചാണകം തീരണമല്ലോ അതങ്ങനെ വാരിയിടും അങ്ങനെയൊക്കെ ഞങ്ങള് ചെയ്ത് അങ്ങനെ മുന്നോട്ടുപോവാ അതുപോലെതന്നെ നമുക്ക് കുമ്മായമിട്ട് രണ്ട് പ്രാവശ്യം ഈ ചെടികള് കഴിവ ജൈവവളം ഉപയോഗിക്കുന്ന കൂട്ടത്തില്ത്തന്നെ കുമ്മായം വാരിയിടും കുമ്മായം രണ്ടാണ്ടില് രണ്ട് പ്രാശ്യം കുമ്മായമിടും അപ്പോള് ഈ ജൈവവളത്തിൻ്റെ എന്തോന്ന് ഹരങ്ങൾ കുറെ മാറിവരും പിന്നെ എന്നാ ചെയ്യുന്നെന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാള് ഞങ്ങള് ഈ ജൈവവളം ആ ആക്കുന്നതു പിന്നെ ഇവരു വരും ജൈവവളമൊക്കെ ഉണ്ടാക്കുന്നവര് അവര് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലിതിനെ മൊത്തത്തികരിക്കുവ റബറുകാരാണ് കൂടുതല് കൊണ്ടുപോണെ റബറുകാർക്ക് സംബന്ധിച്ച് പറഞ്ഞാല് റബറുകാർക്ക് ഈ ചാണകം അവരുടെ കാന കുഴിച്ചിട്ട് ആ കാനകോരിക്കണം അപ്പോഴങ്ങനെ നമ്മുടെ ഈ ചാണകം നമ്മുടെ കയ്യിൽ കിടക്കാതെ ഈ കഴിവതും നമ്മളാ ചാണകം നമ്മള് പുറത്തുപയോഗിക്കാനായിട്ട് വിറ്റുമാറും കാരണമെന്നു വച്ചാൽ മഴക്കാലത്തേ നമ്മക്ക് ഈ കാര്യങ്ങളൊക്കെ പേടിക്കേണ്ടതുള്ളു വേനല്ക്കാലം വരുമ്പോൾ അത്രയും പേടിക്കണ്ട കാര്യമില്ല വേനൽക്കാലം വരുമ്പോള് നമുക്ക് പൊടിച്ചു കൂട്ടിയാലും അതിൻ്റെ പൊടിക്കിപ്പം ഇഷ്മ്പോലെ ആൾക്കാരാണ് വരുന്നെ പൊടി വിറ്റ് ചെലവഴിയ്ക്കാൻ കാരണം ഈ രാസവളത്തിനൊക്കെ വലിയ വില ആയതുകൊണ്ടും സർക്കാര് സബ്സിഡികൾ നിർത്തിയതുകൊണ്ടും വലിയ വിലയാണ് അതിന് അതായത് ഓരോ കമ്പനിക്കാരും ഓരോ കാര്യങ്ങളിറക്കുമ്പോള് അവര് അടിക്കടി വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോള് നമുക്ക് കർഷകർക്കത് താങ്ങാനൊക്കത്തില്ല അതിനു കൂടുതൽ നമ്മള് ജൈവവളം കൂടെയൊക്കെച്ചേർത്ത് അതൊക്കെ ഉപയോഗിച്ചങ്ങ് പോവും പഴയകാലത്തിപ്പോള് ഈ ഗ്യാസായത് കൊണ്ട് തീ കത്തീര് കുറവാണ് തീ കത്തീര് കുറവായതുകൊണ്ട് പലരും ചാരം തെങ്ങിൻ്റെ ഒക്കെ മൂട്ടിലങ്ങനെ ഇട് ഇടാറ് പതിവില്ല ഇങ്ങനെയൊക്കെ വടിച്ചെടുക്കാം അതിനീ ചാരത്തിനുപകരം പൊട്ടാഷ്യമൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അതുപോലെതന്നെ ജൈവവളം ഉണ്ടാക്കുന്ന കമ്പിനിക്കാരുണ്ട് അത് നമ്മള് നേരത്തെ ഞങ്ങള് നോക്കാണെ ചാസിൻ്റെ ഇതില് ഞങ്ങള്ക്ക് പിന്നെ മണ്ണിര കമ്പോഷുണ്ടായിരുന്നു മണ്ണിര കമ്പോഷിനീ പച്ചവളം ചേർത്ത് മണ്ണിര കമ്പോഷ് എല്ലാമിട്ടുണ്ടാക്കി ചെറ് ഇപ്പോഴത് ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാല് വീട്ടില് ആൾക്കാർക്ക് രോഗവും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പഴ്ത്തേയ്ക്ക് ആ വക കാര്യങ്ങളെന്നും ശ്രദ്ധിക്കുകയും പോവുകയും അത് നോക്കുവേക്കെ ചെയ്യണ്ടത് കൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടായി മണ്ണിര കമ്പോഷെന്ന് പറയുന്ന സാധനം നല്ലതാണ് അതിനീ പച്ച ചാണകവും ഒക്കെ ചെലവാകും പച്ചച്ചാണകം നമ്മടെ പറമ്പിലെ പച്ചിലകള് അങ്ങനെയുള്ള എല്ലാങ്കൂടെ അരിഞ്ഞ് വാഴപ്പിണ്ടി മറ്റേതെല്ലാമരിഞ്ഞ് ഇതിനകത്തിട്ട് അതിൻ്റെ പുറത്തുകൂടി പച്ചച്ചാണകമിട്ട് ഒക്കെ ഞങ്ങള് എനിക്കൊക്കെ മണ്ണിര കമ്പോഷുണ്ടാക്കിക്കൊണ്ടിരുന്നാല് മണ്ണിരയുമിടും ആ മണ്ണിര കമ്പോഷ് ഞങ്ങള് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പൊഴ്ത്തേയ്ക്കത് മുപ്പത് ദിവസം കഴിയുമ്പോഴ്ത്തേയ്ക്ക് മണ്ണിര കമ്പോഷ് അത് ശരിയാവും അതുതന്നെ ഇപ്പോള് ഞങ്ങള് ചെയ്യുന്ന കൂടുതലും ചെയ്യുന്നേന്നെച്ചാല് അടുക്കളയിലൊക്കെ വരുന്ന ബേസ്റ്റ് വരുന്ന സാധനംകൊണ്ടാണ് അതിന് പഞ്ചായത്തില് രണ്ട് കുറ്റി തന്നിട്ടുണ്ട് ആ കുറ്റിക്കകത്തത് സ്റ്റോക്ക് ചെയ്ത് അത് കമ്പോസ്റ്റാക്കി ഇതിനൊക്കെ മൂട്ടില് വാരിയിടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ അല്ലാതെ ഈ സാധാരണ നമ്മള് ഈ പിന്നെ വളത്തിൻ്റെ ഉപയോഗം കൂടുതല് കുറയ്ക്കുന്നതിന്രെ ഉദ്ദേശമെന്താണെന്നു വച്ചാല് സാമ്പത്തികംകൊണ്ട് പിടിച്ചുനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം കമ്പനിക്കാരോടൊക്കെ ഇപ്പത്താങ്കെ സാധാരണ നമ്മള് കടകളീന്ന് വാങ്ങിയ പായ്ക്കറ്റ് വാങ്ങി അല്ലെങ്കില് നിറച്ചു വരുന്ന സാധനത്തിന് അഞ്ച് രൂപ പത്തു രൂപ കൂടുതലാണ് ലൂസായിട്ട് കിട്ടുന്നതിലും അപ്പോള് അങ്ങനെയുള്ള പല വ്യത്യാസങ്ങളും നമ്മളെ നാട്ടില് കണ്ടുവരുന്നതുകൊണ്ട് ഈ കർഷകരെ ഏറ്റവുമധികമായി ഗവൺമെന്റ് നോക്കാത്തൊരു വർഗ്ഗമാണ് കർഷകര് അതായത് നെൽകർഷകനായാലും കന്ന് കന്നുകാലി കർഷകരായാലും ഏത് കർഷകനായാലും കർഷകർക്ക് ഉള്ള സബ്സിഡിയും പിൻവലിച്ചു വളത്തിന് കമ്പനിക്കാർക്കിഷ്ടമ്പോലെ പൈസ അവര് പിന്നെ കോഴ വാങ്ങിക്കൊണ്ട് അവർക്ക് നിർമ്മിച്ച് കൊടുക്കും അവരത് കൊണ്ടുവരും പിന്നെ കക്കാക്കാർക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങള് വരുമ്പോഴത്തേയ്ക്ക് ഈ ചെയ്തുപോവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികം നമുക്ക് പിടിച്ചുനില്ക്കാനൊക്കുന്നില്ല അതിനുള്ള വരുമാനങ്ങള് നമ്മളിവിടുത്തെ വരുമാനമെന്ന് പറഞ്ഞ് വേലയെടുത്ത് കൃഷിക്കാരനുണ്ടാക്കുന്നത് കൊണ്ടല്ല കഴിഞ്ഞുകൂടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തോട്ടൊക്കെപ്പോയി പൈസ സമ്പാദിച്ച് ഇവിടെ ചെലവഴിക്കുന്നത് കൊണ്ടാണ് നമ്മള് കഴിഞ്ഞുപോകുന്നെ കൃഷി കൊണ്ടിരിക്കുവാണെങ്കില് ഒരു കർഷകരും ആത്മഹത്യ പെരുകുന്നതല്ലാതെ ഒരു കർഷകരും രെക്ഷപ്പെടത്തില്ല കാരണം നമ്മുടെ മണ്ണിലൊക്കെ അത്രയും കീടങ്ങളൊക്കെ ആയിപ്പോയി മണ്ണില് പിന്നെ ചെല്ലിയും അതുമൊക്കെ വരുന്ന ഒത്തിരി കീടങ്ങളൊക്കെ ആയിപ്പോയി അതുപോലെതന്നെ ഈ ഒരൂ പരിധി വരെ പറഞ്ഞാൽ കമ്പനിക്കാര് നമ്മളെ ഈ പശുക്കൾക്കൊക്കെ കാലിത്തീറ്റ കൊടുക്കുമ്പോഴീ സ്റ്റോക്കിരിക്കുന്ന കാലിത്തീറ്റ ഇത്ര ദിവസം വരെയേ ഇരിക്കാവൂ എന്ന് നിബന്ധനയാണ് അവർക്ക് പൈസ കിട്ടണ്ട പേർക്ക് അതല്ല അവര് കയറ്റിക്കയറ്റി കർഷകൻ്റെ നെഞ്ചത്ത് കയറ്റിവിടും അതെല്ലാമിങ്ങോട്ട് കൊണ്ടുവന്ന് കന്നുകാലിക്കൊക്കെ അസുഖമൊക്കെയായിട്ടങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പോള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക്